കോഴി വളർത്തലിൽ കോഴികളെ ഞങ്ങൾ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ അവരുടെ കൂടിൻ്റെ പരിസരത്ത് ഇഴജന്തുക്കളോ പിന്നെ പട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ആദ്യമേ ചെന്ന് നോക്കും പിന്നെ അവർക്ക് ഭക്ഷണവും വെള്ളവും വെച്ച് കൊടുക്കും പിന്നെ അവരുടെ കൂട്ടിൽ അവരുടെ അവരുടെ കൂടും പരിസരവുമൊക്കെ രാവിലേ തന്നെ വൃത്തിയാക്കും പിന്നെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ തളർന്നതുപോലെ ഇരിക്കുന്നുണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലും ക്ഷീണമായി എന്തെങ്കിലുമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മരുന്നുകൾ പിന്നെയവർക്ക് തന്നെ വിറ്റാമിൻ ഗുളികയുണ്ട് അത് നമ്മളവർക്ക് ഭക്ഷണത്തിൻ്റെ കൂടെത്തന്നെ പൊടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് ഇര ഇര ഗുളികയുണ്ട് അതവർക്ക് സമയത്തിന് കൊടുക്കും പിന്നെയതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിലും അവർക്ക് ഭക്ഷണവും വെള്ളവും രാവിലത്തേത് തീർന്നു തീർന്നെങ്കിലതനുസരിച്ച് വീണ്ടും നമ്മളത് വെച്ച് കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു മണിക്കൂറെങ്കിലും അവരെ ഒന്ന് നമ്മുടെ പറമ്പ് നമ്മളുടെ പറമ്പിൽത്തന്നെ കുറച്ച് നേരമൊന്നഴിച്ച് വിടും അപ്പം അവരൊന്ന് പിന്നെ ചിക്കിപ്പെറുക്കാനും ഒന്ന് ചിറകൊക്കെ ഒന്ന് വിടർത്തിയൊന്ന് ചെറുതായിട്ടൊന്ന് പറക്കാനുമൊക്കെ അവർക്ക് സാധിക്കും അങ്ങനെ കോഴി വളർത്തലിൽ പിന്നെ കോഴി കോഴിയെ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ട കൊണ്ട് നമ്മൾക്ക് അവരുടെ തീറ്റകളൊക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു വരുമാന മാർഗ്ഗവും പിന്നെ നമ്മൾക്ക് അത്യാവശ്യത്തിന് വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് മുട്ടകളും എല്ലാം അവയിൽ നിന്നൂരി അവ അവയിൽനിന്നമ്മക്ക് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ കോഴി വളർത്തൽ ഒരു നഷ്ടമില്ലാത്തൊരു പിന്നെ ഒരു ഇതാ ഒരു ജോലിയാണ് പിന്നെ അതേപോലെത്തന്നെ പിന്നെ കൂടുതൽ കോഴി ഉള്ളതനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ മുട്ടകളും കിട്ടും പിന്നെ അവരെ നന്നായിട്ട് പരിപാലിക്കണം ഇല്ലെങ്കിൽ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾക്ക് അവർ കോഴി വളർത്തൽ നമുക്ക് നഷ്ടമായിട്ട് മാറും അവർ ഭംഗിയായിട്ട് അവരുടെ കൂടുകളുമെല്ലാം വൃത്തിയാക്കി അവരെ നന്നായിട്ട് പരിപാലിച്ച് പോവുകയാണെങ്കിൽ കോഴി വളർത്തൽ ഒരു ലാഭ ലാഭമായൊരു കാര്യം തന്നെയാണ് അപ്പം അവരോട് മോശമായിട്ടൊന്നും നമ്മൾ അവരെ മോശമായിട്ട് വളർത്തരുത് വളർത്തിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്നാണ് അണുബാധയും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് അവർക്ക് പെട്ടെന്ന് പിന്നെ രോഗം പിടിപെടും അപ്പം അവർ പിന്നെ പതിവ് ആയിട്ട് അവരെ നോക്കണം അവരെ ആരോഗ്യം ശ്രദ്ധിക്കണം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കണം പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു കാര്യമങ്ങ് അവർ ഒന്ന് നന്നായിട്ട് വളർന്ന് വന്നോളും അതിൻ്റെ ഫലവും നമ്മൾക്കെടുക്കാനായിട്ട് സാധിക്കും